ഞാൻ കുറച്ച് ബാങ്കിൾസ് അഥവാ വളകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ വളകളൊക്കെ വില കുറവിൽ കിട്ടും എന്നു പ്രതീക്ഷിച്ചാണ് ഞാൻ വാങ്ങിച്ചത് എങ്കിലും അതിന് എൻ്റെ കയ്യിൽ നിന്നും അവര് വളരെയധികം വിലയെടുക്കുകയും അത് പെട്ടെന്ന് തന്നെ നാശമാവുകയും ചെയ്തു വളരെ കഷ് കഷ്ടപ്പെട്ടാണ് ഞാൻ ആ വള വാങ്ങിച്ചത് എങ്കിലും കുറച്ച് നാളുപോലും എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല അതിൻ്റെ കളറ് ഡിമ്മാവുകയും അതിൻ്റെ സ്റ്റോണെല്ലാം വിട്ടുപോവുകയും ചെയ്തു മാത്രമല്ല ഇത്ര കൂടുതൽ വില കൊടുത്ത് കുറച്ച് നാളേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ളൂ എന്ന ഒരു സങ്കടം കൂടി എനിക്ക് അതിൽ നിന്നു ഉണ്ടായി അതുകൊണ്ടു തന്നെ ഇനി ഇങ്ങനെയുള്ള ബാങ്കിൾസ് വള ബാങ്കിൾസ് വളകള് എന്നിവ ഈ സാധനങ്ങള് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങില്ല എന്നൊരു ഉറച്ച തീരുമാനം കൂടി എനിക്ക് എടുക്കേണ്ടി വന്നു